സ്റ്റാമ്പുകളും നാണയങ്ങൾ കല്ലുകൾ എന്നിവ ശേഖരിക്കുന്നതിലേക്ക് എന്നെ ആകർഷിച്ചത് ഇതിൻ്റെ ആദ്യമൊരു കൗതുകമായിരുന്നു പക്ഷേ സ്റ്റാമ്പുകളും നാണയങ്ങളും കല്ലുകളും നമുക്കെപ്പോഴും നമ്മുടെ ഒരു ശേഖരത്തിലുൾപ്പെടുത്തുന്നത് പഴയ രാജ്യങ്ങളിലെ പഴയ പാരമ്പര്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് നാണയങ്ങളിൽ വഴി മനസ്സിലാക്കുവാൻ സാധിക്കും കല്ലുകൾ പലതരത്തിലുള്ള കല്ലുകളുണ്ട് പ്രാചീന ശിലാഫലകളുണ്ട് നാണയങ്ങളോരോ രാജ്യത്തിനോരോ നാണയങ്ങളാണ് സ്റ്റാമ്പുകളോരോ രാജ്യങ്ങൾക്കുണ്ട് വിശേഷാവസരങ്ങൾ വിളിച്ചൊരു പുറ പ്പെടുവിക്കുന്ന സ്റ്റാമ്പുകളുണ്ട് പുറത്തെ വ്യക്തികൾക്കു വേണ്ടി ആദരങ്ങൾ അർപ്പിച്ചു കൊണ്ട് പുറപ്പെടുവിക്കുന്ന സ്റ്റാമ്പുകളുണ്ട് നാണയങ്ങളിതു പോലെ തന്നെ ഉണ്ട് നമ്മൾ നാണയങ്ങൾ നമ്മൾ ആശയവിനിമയ കൈമാറ്റത്തിനുപയോഗിക്കുന്നു പരസ്പര കൈമാറ്റത്തിന് നാണയങ്ങൾ കല്ലുകളുമുണ്ട് പലതരത്തിലുള്ള രൂപത്തിലുള്ള കല്ലുകൾ പുരാവസ്തു ശേഖരങ്ങൾ ഇവയെല്ലാം നമ്മൾ ശേഖരിക്കുന്നതിലേക്കുള്ള ആ കൗതുകം കൗതുകം അങ്ങോട്ട് ഇനിയുള്ള തലമുറക്ക് ഇതു കാണുന്നത് തീർച്ചയായിട്ട് അവർക്കിനി ഇത് സ്വന്തമായിട്ട് കണ്ടു പിടിക്കാൻ സാധിക്കും നമ്മളിത് ശേഖരിച്ച് വെച്ചാലവർക്കത് പിന്നീട് പഠനത്തിന് ആവശ്യങ്ങൾക്കുപയോഗിക്കുവാനായിട്ട് സാധിക്കും